ഹലോ അയർക്കുന്നം പോലീസ് സ്റ്റേഷൻ

അത് ശരി

ഈ വീട് നിങ്ങൾക്കറിയാവുന്നത് ആണോ അത് അത് ശരി അവർക്ക് ഒന്നും പ പറ്റീട്ട് ഒന്ന് അവർക്ക് പരുക്കൊന്നും ഇല്ല ആ വല്ല സാധനം വല്ലതും കിട്ടീട്ടുണ്ടോ കുത്തി തുറക്കാനുള്ളത് വല്ലതും കിട്ടിയോ കിട്ടിയിട്ടുണ്ടല്ലെ ആ അപ്പം അത് നിങ്ങള് തൊടുവൊന്നും വേണ്ട അവിടെ കിടന്നോട്ടെ അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യൂ ഇപ്പം അത് ഇപ്പം ഇപ്പം ആള് വീട്ടിലുണ്ടോ ഇപ്പം അവരുടെ ഒരു ക ശരി ഒരു കാര്യം ചെയ്യൂ എന്നാൽ അപ്പം അങ്ങനൊണ്ടെങ്കിലേ ഇപ്പം ഞാനെ പൊലീസുകാരെ അയച്ചേ പൊലീസുകാരെ കാരുവായിട്ട് ഇപ്പം ഞങ്ങളങ്ങോട്ട് വരും കറക്റ്റ് ലൊക്കേഷൻ എവടാന്ന് പറഞ്ഞേ പുളിഞ്ചോടല്ലേ ആ ഓക്കെ ഓക്കെ ഞങ്ങൾക്കറിയാവുന്ന സ്ഥലവാണ് സ്ഥലവാണ് ആ കുഴപ്പമില്ല അപ്പം അത് അവർക്ക് അവിടെ വന്ന് ചോദിച്ചാൽ ഉടനെ അറിയാവല്ലോ അതാവുമ്പോ വീടിൻ്റെ വീടിൻ്റെ ഏരിയ അപ്പം കുഴപ്പമില്ല ഞങ്ങളിപ്പം ദേ അധികം അധികം താമസിയാതെ വരും കേട്ടോ പോലീസുകാരായിട്ട് വരുന്നുണ്ട് ഓ ഓക്കെ ഓക്കെ ഓക്കെ